ഹലോ ട്വെന്റി ഫോർ റെസ്റ്റോറന്റ് ആണോ ഞാൻ ബത്തേരിയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് അവിടുത്തെ മെനു ഏതൊക്കെയാന്ന് അറിയാനുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടോ ബിരിയാണി ഉണ്ടെങ്കിൽ അതൊന്ന് ഓർഡർ ചെയ്യാനായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് പറയാമോ ആ ഇന്ന് നൈറ്റ് നൈറ്റ് വീട്ടിൽ കുറച്ച് ഗസ്റ്റുണ്ട് കുറച്ചു ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിക്ക് ആവിശ്യത്തിനായിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത് നിങ്ങളുടെ ഭക്ഷണം നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവിടെ നിന്ന് ചെയ്യുന്നത് പിന്നെ ബിരിയാണി പിന്നെ കുറച്ച് ഒരു ഫ്രൈഡ് റൈസ് വേണം പിന്നെ അതിന്റെ സാലഡ് പോലത്തെ ഐറ്റംസൊക്കെ സൈഡ് ഡിഷായിട്ട് വേണം പിന്നെ എന്താ ഒരു നൂറു പേർക്കാണ് ഞാൻ പറയുന്നത് നൂറ് ബിരിയാണി പിന്നെ ലെമൺ ടീ വേണം അതിന്റെ ഗ്ലാസ്സും സ്ട്രോ ഐറ്റംസും അതെല്ലാം കൂടി ഉൾപ്പെടുത്തണം പിന്നെ ബിരിയാണിക്ക് ആവിശ്യമായ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം എല്ലാം തന്നെ തരേണ്ടതാണ് സ്ഥലം ബത്തേരി